ഹലോ

ആ ഇവിടിഇ ഈ റെസ്റ്റോറൻറ്റിൽ ഇപ്പോൾ ചിക്കൻ സ്റ്റുവും അപ്പവും ആണ് നിങ്ങൾ ഏത് ഇപ്പോൾ ഉച്ചത്തേക്കാണോ രാത്രിയിലത്തേക്കാണോ രാവിലെത്തെയാണോ എങ്ങനെയാണ് ഏത് നേരത്തേക്കാണ് വേണ്ടത് ബ്രേക്ഫാസ്റ്റ് ആയിട്ട് അപ്പോൾ ചിക്കൻ സ്റ്റൂയും അപ്പവും ആണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ അത് ഇപ്പോൾ അപ്പം എന്ന് പറയുന്നത് ഈ വെള്ളയപ്പം ഉണ്ടാവുമല്ലോ അത് ഈ അരി അരച്ചിട്ട് ചുടുന്നത് പിന്നെ ചിക്കൻ സ്റ്റൂ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കുറുമ പോലെ ചിക്കനും പിന്നെ തേങ്ങാപാൽ ഒഴിച്ചിട്ട് പിന്നെ ഉള്ളി അതൊക്കെ വേവിച്ചിട്ട് ഇട്ടിട്ട് പിന്നെ തേങ്ങാപാലും പിന്നെ അണ്ടിപ്പരിപ്പൊക്കെ അരച്ചിട്ട് ഒഴിച്ചിട്ട് അങ്ങനെയാണ് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിന്റെ ഒരു ആ ഇതുപോലെ ആണ് ഇങ്ങനെ ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ അത് മതിയോ ആ ആ ആ ഇവിടെ മെയിൻ ആയിട്ട് പിന്നെ ബ്രേക്ഫാസ്റ്റിന് ഒരുപാട് ആൾക്കാർ വരാറുണ്ട് ഇങ്ങനെ ഇതിന്റെ അഡ്വെർടൈസ്മെന്റ് കണ്ടല്ലെങ്കിലും ഭക്ഷണം കഴിച്ച് പോയിട്ടിങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ അറിവ് കിട്ടിയിട്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ രാവിലെത്തേക്ക് കൂടുതൽ വരുന്നത് അപ്പോൾ ഇവിടെ ഒരു മെയിൻ ഐറ്റം ആണ് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് അപ്പോൾ നിങ്ങൾ കുറേ ആൾക്കാർ വരുന്നുണ്ടോ അപ്പോൾ ഒരു പന്ത്രണ്ട് ആൾക്കാരെ കൂട്ടാം അല്ലേ അപ്പോൾ ഇപ്പം തന്നെ ബുക്ക് ചെയ്യട്ടേ എന്നാൽ ആ എന്നാൽ ഇപ്പം തന്നെ ബുക്ക് ചെയ്യാം പിന്നെ നിങ്ങൾ ഉച്ചത്തേക്ക് എങ്ങാനും ഉണ്ടാവും അതോ ബ്രേക്ഫാസ്റ്റിന് മാത്രമോ മാത്രം മതി ആ ആ എന്നാൽ നിങ്ങൾ വന്നിട്ട് ഇപ്പോൾ പന്ത്രണ്ട് ആൾക്ക് എന്ന് പറയുമ്പോൾ ഒരു ഒരു അതിന്റെ എമൗണ്ട് ഒന്ന് ഞാൻ കണക്ക് കൂട്ടിയിട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം അല്ലെങ്കിൽ നിങ്ങൾ വന്നിട്ട് പറഞ്ഞാൽ മതിയോ നിങ്ങൾ ഇപ്പോൾ ബുക്ക് ചെയ്തിട്ടിട്ട് നിങ്ങൾ ആ ആ എന്നാൽ ഞാൻ നിങ്ങൾ വന്നിട്ട് പിന്നെ ഒരു കാല്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഇപ്പോൾ ബുക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ബുക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എ സി റൂം അങ്ങനെ റൂം ഇപ്പോൾ എ സി അല്ലെങ്കിൽ നോൺ എ സി ഏതാണ് വേണ്ടത് ആ എ സി എടുക്കാം ആ ആ അപ്പോൾ എന്നാൽ ആ ഒരു സെക്ഷൻ ബുക്ക് ചെയ്ത് ഇടുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും വന്നാൽ ഞങ്ങൾ കൊടുക്കില്ല നിങ്ങൾ ഉറപ്പായിട്ടും വരില്ലേ ആ എന്നാൽ ഓക്കേ ആ